ആധുനിക ലോകത്ത് മലയാള ഭാഷ നേരിടുന്ന വെല്ലുവിളികള് എന്തൊക്കെയാണെന്നു പറയുന്നതു തന്നെ ഇപ്പോഴത്തെ കാലഘട്ടത്തില് മലയാളം വായിക്കാനറിയത്തില്ല എഴുതാനറിയത്തില്ലാത്ത ഒത്തിരി കുട്ടികള് വളർന്നുവരുന്നുണ്ട് മലയാളം എന്താണ് അവരുടെ മാതൃഭാഷ അതായിരിക്കും പക്ഷേ മലയാളം എങ്ങനെ എഴുതണം എങ്ങനെ പറയണം എന്ത് എങ്ങനെ ഉപകാരപ്പെടുത്തണം എന്നറിയത്തില്ലാത്ത ഒത്തിരി പേരുണ്ട് അങ്ങനെ ഇപ്പോള് നമ്മളൊരു ഒരു ബസ് സ്റ്റാൻഡിലോട്ട് തന്നെ ചെല്ലുകയാണെങ്കില് ഏതു വണ്ടി സ്ഥലം അറിയായിരിക്കും പക്ഷേ വണ്ടി നോക്കി കയറി വായിച്ച് കയറിയ ഒരു എഴുതാനറിയാതെ ഒത്തിരി ബുദ്ധിമുടുന്ന ഒത്തിരി പേരുണ്ട് അപ്പോള് മലയാള ഭാഷയുടെ വെല്ലുവിളി എന്നു പറയുന്ന മെയിൻ കാരണം എന്നു പറയുന്ന മലയാള ഭാഷയെപ്പറ്റി അറിയത്തില്ല അറിവില്ലായ്മ എഴുതാൻ അറിയത്തില്ല വായിക്കാൻ അറിയത്തില്ല അതു തന്നെ ഒരു വലിയ കുഴപ്പമാണ് മലയാള ഭാഷ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്നു പറയുന്നതതാണ് പിന്നേന്നു പറയുന്നത് വെളിരാജ്യങ്ങളിൽ നിന്നു വരുന്ന ഒത്തിരി കുട്ടികള് കേരളത്തില് വന്നു പഠിക്കുന്നവരുണ്ട് അപ്പോള് അവർക്ക് അവരുടെ മാതൃഭാഷയായ ഇംഗ്ലീഷോ അങ്ങനുള്ള ഭാഷകള് മാത്രമേ അറിയത്തുള്ളായിരിക്കാം അപ്പോള് അവരിവിടെ വന്ന് മലയാളം പഠിക്കുകയും അത് അവർക്ക് അവര് ഈ നമ്മള് എൽ കെ ജി യു കെ ജി പഴയ നമുക്കൊരു ബേസ് കിട്ടാതെ മലയാള ഭാഷേനെപ്പറ്റി നമുക്ക് എഴുതാൻ പറ്റത്തില്ല അത് മലയാളം എഴുതാൻ പറ്റത്തില്ല എന്നതു തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം ഒരു ബേസ് വേണം അ ആ ഇ ഈ അറിയാതെ നമുക്ക് അമ്മാന്ന് പോലും വിളിക്കാൻ പറ്റത്തില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോള് മലയാള ഭാഷ നേരിടുന്ന വെല്ലുവിളികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാല് ഇതൊക്കെത്തന്നെയാണ് മലയാള ഭാഷ ഏറ്റവും വലിയ വെല്ലുവിളികളെന്നു പറയുന്നത് ഇപ്പോൾ വളർന്നു വരുന്ന കുട്ടികൾക്ക് മലയാള ഭാഷ എഴുതാനറിയത്തില്ല വായിക്കാൻ അറിയത്തില്ല അതെങ്ങനെ ഉപകാരപ്പെടുത്തണമെന്നറിയത്തില്ല ഇതാണ് ഇപ്പോഴത്തെ കുട്ടികൾക്ക് അവരുടെ ജീവിത്തിൽ നേരിടുന്ന മലയാള ഭാഷയിൽ നേരിടുന്ന ഏറ്റവും വലിയ കുഴപ്പം പിന്നെ പറയാണെങ്കിൽ മലയാള ഭാഷ ഇംഗ്ലീഷ് ഹിന്ദി ഇങ്ങനെ നമ്മള് എടുക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഏറ്റവും കൂടുതല് കുട്ടികൾക്ക് അറിയാവുന്ന ഭാഷ എന്നു പറഞ്ഞാല് ഇംഗ്ലീഷായിരിക്കും സ്വാഭാവികമായിട്ട് അവർക്ക് അറിയാവുന്ന വാക്കുകളെന്നു പറഞ്ഞാല് ഇംഗ്ലീഷായിരിക്കും ഇപ്പോള് മലയാളം ഹിന്ദി ഈ മൂന്നു ഭാഷയിലും അവർക്കറിയാവുന്ന അവർക്ക് ഏറ്റവും കൂടുതൽ അറിയാമെന്നു പറയുന്ന അവരുടെ മാതൃഭാഷ മലയാളമായിരിക്കും പക്ഷേ അവർക്ക് അറിയാവുന്ന ഏറ്റവും ഇല്ല ലാംഗ്വേജെന്നു പറയുന്നത് ഇംഗ്ലീഷായിരിക്കും അപ്പോള് അതു തന്നെയാണ് ഏറ്റവും വലിയ വെല്ലുവിളി ഇതാണ് എനിക്കു പറയാനുള്ളത്